മലയാള ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ എഴുതിയ കിളി ഭാഷ അല്ലെങ്കിൽ യഥാർത്ഥ മലയാള ഭാഷയല്ല ഇന്നു കേരളത്തിലുടനീളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ പതിനാല് ജില്ലകളുണ്ടെങ്കിൽ പതിനാല് ജില്ലകളിലും അവരുടേതായ സ്ലാങ്ങുകൾ അവരുടേതായുള്ള നാട്ടു ശൈലികളുണ്ട് അവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട് അവരുടെ സംസ്കാരത്തിനോടു യോജിച്ച അവരുടെ ദൈനംദിന ജീവിതത്തിനു യോജിച്ച അതുപോലെ അവരുടെ അയൽപക്കങ്ങളോടു യോജിച്ചിട്ടുള്ള അവരുടെ സ്ലാങ്ങുകളുണ്ട് അവരുടെ വർത്തമാന ശൈലികളുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാസർഗോഡ് കാസർഗോട്ടുകാരുടെ ഭാഷയക്കുറിച്ച് മലയാളത്തെ കുറിച്ചു പറയുകയാണെങ്കിൽ സപ്ത ഏഴ് ഭാഷകൾ കയറിക്കൂടിയുള്ള ഭാഷ എന്നാണ് പറയുക അപ്പോള് ആ ഒരു ഭാഷ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പാലക്കാടുള്ളൊരു മലയാളി അല്ലെങ്കിൽ മലപ്പുറത്തുള്ളൊരു മലയാളിക്ക് അതു മനസ്സിലാകണം കൊള്ളണമെന്നില്ല അവര് കൂടുതലായും വാ എന്നുള്ള വാക്കിനെ ബ എന്നുള്ളൊരു വാക്കായിട്ടാണ് യൂസ് ചെയ്യുക ബേഗം ബെരിന് വേഗം വരൂ എന്നുള്ളതിനൊക്കെ അങ്ങനെ കോഴിക്കോടായാലും കണ്ണൂരായാലും മലപ്പുറമായാലും പാലക്കാടായാലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശൈലിയുണ്ട് ഭാഷാ രീതികളുണ്ട് ഇനി കോമണായൊരു കാര്യം നോക്കുകയാണെങ്കില് പൊതുവായ ഒരു കാര്യം നോക്കുകയാണെങ്കില് നമുക്കു മനസ്സിലാവകുന്നതെന്താണെന്നുവച്ചാൽ ഇംഗ്ലീഷ് ഭാഷയുടെ കടന്നുകയറ്റമാണ് പല വാക്കുകളെയും ഇംഗ്ലീഷ്വല്ക്കരിക്കപ്പെടുകയാണിപ്പോള് ഇംഗ്ലീഷൊരു ഗ്ലോബൽ ഭാഷയായതുകൊണ്ടുതന്നെ എല്ലാവരും അത് യൂസെയ്യുന്നു അതിനെ മറ്റു അവിടേക്ക് അവിടേക്കു പോയിട്ടുള്ളവർ തിരിച്ചുവരുമ്പോൾ ആ ഭാഷ ഇവിടെ യൂസെയ്യുകയാണ് അതുപോലെ ദുബായിലേക്കു പോയവരും പല വാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹണത്തിന് മലപ്പുറം എടുത്തു നോക്കുകയാണെങ്കിൽ മലപ്പുറം സ്ലാങ്ങിലുള്ള മലപ്പുറം തദ്ദേശീയ ഭാഷകളിൽ കൂടുതലായി അവർ യൂസ് ചെയ്യുന്ന വാക്കുകള് ഉപയോഗിക്കുന്ന വാക്കുകള് എന്നുള്ളത് ഒരു അറബി ഭാഷയോടു സാമ്യത ഉള്ളതാണ് ഉദാഹരണത്തിന് സോപ്പിന് സാബൂൻ അതുപോലെ പല വാക്കുകളും അങ്ങനെ ആ അറബി ശൈലിയിൽ നിന്ന് അവർ കടമെടുത്തതാണ് അതുപോലെ ഇംഗ്ലീഷില്നിന്ന് ത്ത പല വാക്കുകളും സ്വിച്ച് ബസ് സ്റ്റോപ്പ് അങ്ങനെല്ലാം പല വാക്കുകളും നമ്മള് മറ്റു ഭാഷകളിൽ നിന്നു കടമെടുത്തതാണ് എന്നുള്ളതൊരു യാഥാർഥ്യമാണ് എഴുത്തച്ഛനുണ്ടാക്കിയ അന്നത്തെ കിളി ഭാഷയല്ല ഇന്നു നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു സാഹിത്യമായിട്ടുള്ള ആരുടെ എഴുത്തെടുത്തു നോക്കുകയാണെങ്കിലും പുതുതായ വാക്കുകൾ പുതിയ മലയാളവൽക്കരിച്ച പദങ്ങൾ കൂടി കയറിക്കൂടിയത് നമുക്കു പെട്ടെന്നു മനസ്സിലാക്കാൻ കിഴിയും ഇന്നത്തെ ഒരു മാതൃഭൂമിയിലുള്ളൊരു കവിത വായിച്ചാൽ അതിൽ നമുക്കു പുതിയ വാക്കുകള് കിട്ടും ചിലപ്പോള് അതിൻ്റെ തലക്കെട്ടു തന്നെ വല്ല ഇസങ്ങളായിരിക്കും ഇംഗ്ലീഷ് ഫാഷിസം അതുപോലത്തെ വല്ല ഒരു ഇസമായിരിക്കും അതിനുള്ള യോജിച്ചിട്ടുള്ള തലക്കെട്ട് അങ്ങനെ കൂടുതൽ പല കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമായി പലയിടത്തും പലതരത്തിലുള്ള ഭാഷാ ശൈലികളുണ്ട് ഭാഷാ വ്യതിയാനങ്ങളുമുണ്ട്